ഹലോ നമസ്കാരം

ആ നമ്മൾ ടി വി എ ഷോറൂമന്നാണ് വിളിക്കുന്നത് ആ നമുക്ക് എല്ലാം എല്ലാ മോഡലും അവൈലബിൾ ആണ് അപ്പോൾ നാൽപ്പത്തി അഞ്ച് അൻപതൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ അവൈലബിളായിട്ടുള്ളത് ടി വി എസ് അപ്പാച്ച ടി എസ് റോണിൻ അതുപോലെ ഞാൻ സ്കൂട്ടസിൽ ടി വി എസ് ജൂബിറ്ററ് വൺ ഹൺഡ്രഡ് വൺ ടെൻ പി ജി എസ് സെൻ്വർക്ക് പി ജി എസ് ലിസ്റ്റ ഒക്കെ ഉണ്ട് ഇനി അപ്പോൾ എ ഹാർറ്റിയർ വൺ എയ്റ്റി ഉണ്ട്

ആ വിഷുവും ഓണം ഒക്കെയായിട്ട് ഓഫറുകളൊക്കെ ഉണ്ട് ആ ആല്ല സെക്കൻഡ് ഹാൻഡും ഉണ്ട് ആ കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂം സന്ദർശിക്കാവുന്നതാണ് ഓഫറുകൾ

ഓഫറ് ഏതിലാണ് നോക്കുന്നത് സ്പ്ളെൻഡിഡ് ആ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇൻസ്റ്റാൾമെൻറ് ആയിട്ട്

അത് ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ട് വരും

ഇവിടെ തിരുവരങ്ങാട് തിരുവങ്ങാട് ജംഗഷല്ലന്നാണ് കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ സന്ദർശിക്കാവുന്നതാണ് താങ്ക് യൂ